കുറേ ഹോബികളും താൽപര്യങ്ങളും ഉണ്ട് അതിൽ ആദ്യത്തേത് എന്തെന്ന് വച്ചാൽ കളി ഫുട്ബോൾ ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഭയങ്കര താല്പര്യമുണ്ട് കൂട്ടകാരുമൊത്ത് ഫുട്ബോൾ കളിക്കുക ക്രിക്കറ്റ് കളിക്കുക അത് നല്ലൊരു ഹോബിയാണ് വളരെ സന്തോഷായിരിക്കും പിന്നെ അടുത്ത ഹോബി എന്തെന്ന് വച്ചാൽ സിനിമ സിനിമ കാണുക സിനിമകളും സീരീസുകളെല്ലാം കാണുക അതൊരു ഹോബിയാണ് പിന്നെ ഫോട്ടോഗ്രഫി ഫോട്ടോഗ്രഫി ചെറുപ്പം തൊട്ടേ നല്ലൊരു ഹോബി ആണ് മൊബൈലിലൊക്കെ ഫോട്ടോ എടുക്കുക ക്യാമറയിൽ ഫോട്ടോ എടുക്കുക ഒരു പ്രത്യേക ഹോബിയാണ് അതുകൊണ്ട് തന്നെ യാത്രകളെല്ലാം പോകാൻ ഇഷ്ടമാണ് ദൂരേയ്ക്കുള്ള യാത്രകൾ അതൊരു ഹോബിയാണ്